ഇപ്പം എനിക്ക് ഫ്ലിപ്പ്കാർട്ടിൽ ഒരു സാരി കണ്ട് കാഞ്ചീപുരം സിൽക്ക് സാരി അതിൻ്റെ ഒരു റേറ്റ് എന്ന് പറയുന്നത് നയൻ നയൻറി നയൻ എന്നെല്ലാം നല്ലൊരു റെഡ് കളറിലുള്ള ഒരു സാരി അപ്പം എനിക്കൊരു കല്യാണത്തിന് വേണ്ടിയിട്ട് ഉടുക്കാനായിരുന്നു അങ്ങനെ ഞാൻ അത് വാങ്ങിയത് അപ്പം അതിലത്തെ റിവ്യൂസ് എല്ലാം നോക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഗുഡ് ക്വാളിറ്റി എന്നെല്ലാം പറയുന്നു എല്ലാം ഉണ്ട് അങ്ങനെ ഞാനത് ഓർഡർ ചെയ്തു അത് ഒരു ഓർഡർ ചെയ്തിട്ടൊരു നാലഞ്ച് ദിവസം കഴിയുമ്പോഴാണ് എനിക്ക് കിട്ടിയത് കിട്ടിയിട്ട് ഞാനത് തുറന്ന് നോക്കുമ്പോൾ ഞാൻ ഓർഡർ ചെയ്ത കളർ റെഡ് ഒന്നാമത്തെ കേസി തന്നെ ഞാൻ ഓർഡർ ചെയ്ത കളർ റെഡ് പക്ഷേ എനിക്ക് കിട്ടിയത് ബ്ലൂ കളർ പിന്നെ ഞാൻ ഓർഡർ ചെയ്ത ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഒന്ന് എനിക്ക് കിട്ടിയത് അതിൻ്റെ ഉള്ളിൽ രണ്ടെണ്ണം ഉണ്ടായിനി അത് റെഡ് ഇല്ല വേറെ വെറെ കളറിന്റേത് ഉള്ളത് പിന്നെ പാറ്റേൺ അതിലുള്ളത് പോലത്തെ പാറ്റേൺ അല്ലേയല്ല എനിക്ക് ഇതിൽ കിട്ടിയത് പിന്നെയെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്മെൽ ഒരു ബാഡ് സ്മെൽ ഉണ്ടായി പിന്നെ ഡാമേജ് ഉണ്ടായി ആ തുണിക്ക് അതുപോലെ അല്ല അത് അതിൽ അഞ്ചര മീറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട് ഇവിടെ വീട്ടിൽ വന്നിട്ട് ടേപ്പ് വെച്ചിട്ട് ഞാൻ അളക്കുമ്പോൾ അഞ്ചര മീറ്റർ ഇല്ല അതുകൊണ്ട് അതിൽ ബ്ലൗസ് കട്ട് ആക്കാൻ കഴിയില്ല പിന്നെ കീറിയിട്ടുണ്ട് ഒരു സാരി ഫുൾ കീറിയിട്ടുണ്ട് മടക്കിൻ്റെ ഭാഗത്ത് കീറിയിട്ടുണ്ട് പിന്നെ കു കുമ്പിച്ചിട്ടുണ്ട് പിന്നെ ആ പാറ്റേൺ എന്ന് പറയുന്നത് വ്യത്യാസമായ പാറ്റേൺ ആണ് അതുകൊണ്ട് എനിക്കെന്ന് വെച്ചാൽ ഞാൻ ഇതിന് മുൻപ് വാങ്ങിനി ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് പക്ഷേ അത് അത്ര ഇതുണ്ടായില്ല അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് വാങ്ങിയത് ഇന്ന് സാരി പക്ഷേ ഞാനിപ്പം അതിൽ ആ കളർ ഇഷ്ടപെട്ടതുകൊണ്ടാണ് ഞാൻ ആ സാരി വാങ്ങാൻ കാരണം പിന്നെ ഞാൻ റിവ്യൂസും നോക്കി റിവ്യൂസ് എല്ലാം നല്ല നല്ല റിവ്യൂസ് ആണ് അതിൽ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇവിടെ എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ അത് വേറെ അതായത് അതിലുള്ളത് പോലത്തെ അല്ലേ അല്ല എനിക്ക് കിട്ടിയത് പിന്ന ഞാൻ പിന്നെ അത് സ്റ്റിച്ച് ആക്കാനും കൊടുത്തില്ല ഒന്നില്ലെങ്കിലും അത് അതിലുള്ളത് പോലെ ഇല്ലാനുല്ല എനിക്ക് പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുമില്ല അങ്ങനെ ഞാനത് റിട്ടേൺ ആക്കി അപ്പം വെറുതെ നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഒരു സാധനവും നമ്മൾ വാങ്ങിക്കൂട വെറുതെ അതിലുള്ളത് പോലെ അല്ലേ അല്ല നമുക്ക് ഇങ്ങോട്ട് വരുമ്പം കിട്ടുന്നത്